ലോകത്തിൽ ട്രെൻഡുകൾ റൂട്ടുകൾ എന്നിവയെ കുറിച്ച് സംസാരിക്കാൻ ഞാനാളല്ല പിന്നെ എന്തിൻ്റെ ട്രെൻഡാണെങ്കിലും ദിനം പ്രതി ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോള് ലോകത്തെ ട്രെൻഡുകളിലുപരി ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോള് ഇനി ബൈക്കിങ്ങിലെ ട്രെൻഡുകളെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെങ്കിൽ എനിക്ക് തോന്നുന്നു ബൈക്കിംഗ് ട്രെൻഡുകൾ മാറുന്നതിലുപരി മാറി കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഹൈവെ കൂടെ ഒരു അറുപത് എഴുപത് സ്പീഡുകളിൽ തുടർച്ചയായിട്ട് ഓടി വണ്ടി ഓടിച്ചുകൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ രണ്ട് ഇനം ആണ് കിറ്റുള്ള വണ്ടിയില് ഒരൂ എൺ അറുപത് എഴുപത് എൺപത് സ്പീഡ്ഡുകളിൽ ഇങ്ങനിരുന്ന് ഓടിച്ചുകൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു യുവ തലമുറയിൽ നിന്ന് ചിന്താഗതിയിൽ അപ്രതീക്ഷിതമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കണം ടാര് പോലും ഇല്ലാത്ത വഴികളിൽ അതായത് വഴിപോലും ഇല്ലാത്ത വഴികളിലേക്ക് ബൈക്ക് ഓടിച്ചുകയറ്റി മലകളുടെ മണ്ടയിലേക്ക് എത്തിച്ചേരാനാണ് ഇന്നത്തെ ട്രെൻഡുകൾ അല്ലെങ്കിൽ ഇന്നത്തെ ബൈക്കിങ് എന്നതുകൊണ്ട് കൂടുതലായിട്ട് അല്ലെങ്കില് ബൈക്കിങ്ങിലെ ട്രെൻഡ് എന്നതുകൊണ്ടിന്ന് ഉദ്ദേശിക്കുന്നത് അതിനുദാഹരണമാണ് ഈയിടെയായി നിരത്തുകളിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയൻ അതുപോലെ ഒരുകാലത്ത് ആർക്കും വേണ്ടാതിരുന്ന ഹീറോ ഇമ്പിൾസ്കൾ ഇന്ന് നിരത്തുകളിൽ വൻ ഡിമാൻറ്റായി അല്ലെങ്കില് ഇമ്പിൾസിനായി ഓടിക്കൊണ്ടിരിക്കുന്ന യുവതലമുറ അതിൻ്റെ ആ ഡിമാൻറ്ററിഞ്ഞിട്ടായിരിക്കണം എക്സ്പിൾസ് എന്നത് ഇൻട്രൊഡ്യൂസെയ്ത ഹീറോ കമ്പനിയും എല്ലാം ഇതിനുദാഹരണങ്ങളാണ് ഓഫ് റോഡുകൾ തേടി അതായത് ഓൺ റോഡുകളില്നിന്ന് ഓഫ് റോഡുകൾ തേടി അല്ലെങ്കില് റോഡില്ലാത്ത വഴികളിലേക്ക് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡുകളാണ് അല്ലേ റൂട്ടുകളാണ് അല്ലേ ലക്ഷ്യ സ്ഥാനങ്ങളാണ് ഇന്നത്തെ ഇന്നത്തെ ട്രെൻഡ് അത് ലോകത്തിൻ്റെ തന്നെ ട്രെൻഡ് എന്നു പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് അതുപോലെതന്നെ എനിക്ക് തോന്നുന്നു ഹൈവേയിൽ കുടുകുടു വെച്ചുകൊണ്ടിരിക്കുന്ന എൻഫീൽഡുകളില്നിന്നും വ്യത്യസ്തമായി വഴിയേ ഇല്ലാത്ത വഴിത്താരകളിലേക്ക് ഓടിക്കയറാൻ ആഗ്രഹിക്കുന്ന ഓഫ് റോഡുകളുടെ ഒരു കാലഘട്ടം അല്ലെങ്കില് ട്രെഡെന്ന് വേണം ഇന്നത്തെ ബൈക്കിങ് ട്രെൻഡുകളെ വിശേഷിപ്പിക്കാൻ